ഹലോ ഇത് മീനങ്ങാടി ഗ്യാസ് ഓഫീസ് അല്ലേ ഞാൻ ഗ്യാസ് സിലിണ്ടറ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ അപ്പം അതിനെക്കുറിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്

അപ്പൊ എൻ്റെ ഗ്യാസോ എൻ്റെ ഗ്യാസ് കണക്ഷൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം തരാം സിക്സ് വൺ ഡബിൾ വൺ റ്റു വൺ നയൺ വൺ ത്രീ റ്റു എയ്റ്റ് നെയൺ ഇതാണ് നമ്മളെ നമ്പറ് അപ്പം നിങ്ങൾ എത്രയും വേഗം തന്നെ ഇത് ഈ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണം നമുക്ക് ഈ സിലിണ്ടറ് ആവശ്യമില്ല അപ്പം ഈ നമ്പറ് വച്ചിട്ട് നിങ്ങൾ അത് ഉടൻ തന്നെ റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പം പുതിയ ഗ്യാസ് കണക്ഷനൊന്നും ഇപ്പം എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അപ്പം ഈ ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് തന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എത്രയും വേഗം തന്നെ ക്യാൻസൽ ചെയ്യുക ഞങ്ങൾക്ക് ആ സിലിണ്ടറ് ബുക്ക് ചെയ്ത സിലിണ്ടറ് വേണ്ട അത് ക്യാൻസൽ ചെയ്യണം